ഇപ്പോൾ വളർന്ന് കൊണ്ടിരിക്കുന്നൊരു സ്ഥാപനമാണ് റീബൂട്ട് റോബോട്ടിക്സ് ഈ റോബോട്ട് വഴി ഇപ്പോൾ നമ്മൾ പലതും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് ഒരു ഹോട്ടൽ എടുത്ത് കഴിഞ്ഞാൽ അവിടെ ഫുഡ് ഡെലിവറി ചെയ്യുന്നത് ഇപ്പോൾ സെർവൻറ്സല്ല പകുതിയും ഇപ്പോൾ റോബോട്ടുകൾ അവർ അവിടെ എ ഐയുടെ ഹെൽപ്പ് മൂലം ഒരാളെ റെക്കഗ്നൈസ് ചെയ്ത് അവര് തരണ ഫുഡ് ഓഡറുകൾ നോക്കി ബേസ് ചെയ്ത് അതാ അതെ ഓരോ ടേബിൾ നമ്പർ പ്രോവൈഡ് ചെയ്യുന്നുണ്ടാകും ഓരോ ടേബിൾ നമ്പർ അനുസരിച്ച് ആ അതാത് ടേബിളിലോട്ടേക്ക് അതാത് ഭക്ഷണം ഏല്പിക്കുകയാണ് ഈ റോബോട്ടുകൾ ഇപ്പോൾ ചെയ്യുന്നത് റോബോട്ട് വരുന്ന വളർന്ന് വരുന്നത് ഒരു പരിധിവരെ നമ്മൾക്ക് ഹെൽപ്പ് ഫുള്ളാണ് പക്ഷെ ഒരു പകുതി പരിധിക്കപ്പുറം ആ റോബോട്ട് തന്നെ നമ്മക്കൊരു നമ്മുടെ നമ്മുടെ സുരക്ഷയ്ക്ക് ഒരു അപകടകരമായ ഒരു രീതിയിലോട്ടേക്ക് കൊണ്ടുപോകും ഉദാഹരണം നമ്മൾ പലരും കണ്ടിട്ടുണ്ടാകും യന്തിരൻ എന്ന പടം അതിൽ റോബോട്ട് നല്ല രീതിയ്ക്ക് വന്ന റോബോട്ടിനെ എങ്ങനെ ഓരോ പ്രവർത്തികളിലൂടെ ആ റോബോട്ടുകൾ തന്നെ സ്വയം മാറുകയും അതിനനുസരിച്ച് അവ നമ്മുടെ ഓരോ മനുഷ്യനെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത്